ആ ഹലോ കേൾ ഓക്കെ ഓക്കെ കടയിൽ രാവിലത്തെ ഭക്ഷണങ്ങൾ ഉണ്ട് പുട്ട് പുട്ട് അപ്പം ഇടിയപ്പം ദോശ ഇഡലി പിന്നെ ചേ ഓക്കെ ആ ആ ആ നിങ്ങൾ ഒരു പത്ത് മണി ആവുമ്പോഴത്തേന് എത്തില്ലേ ആ ഉണ്ടാകും എന്താണ് വേണ്ടത് ആ ഇതല്ലാണ്ട് ഉണ്ട് അപ്പം ഉണ്ട് ഇഡലി ഉണ്ട് പുട്ട് ഉണ്ട് ദോശ ഉണ്ട് പിന്നെ ചെറുകടികളും ഉണ്ട് ദോശ ആവുമ്പം നാല് രൂപയാണ് ദോശ സാദാ ദോശ പ്ലെയിൻ ദോശയ്ക്ക് നാല് രൂപ ആ അതാവുമ്പോൾ ഇഡലിയും അല്ല സാമ്പാറും ചട്നിയും ഉണ്ടാവും ഇഡലിയും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ അപ്പം ആണെങ്കിൽ നാല് രൂപയാണ് പക്ഷേ കറിക്ക് എക്സ്ട്രാ കറി ഉണ്ടാവില്ല കൂടെ എക്സ്ട്രാ കറികൾ വാങ്ങേണ്ടിവരും നിങ്ങൾ ഇപ്പോൾ നമുക്ക് മുട്ടക്കറിയും കടലക്കറിയും ആണുള്ളത് അല്ലെങ്കിൽ പുട്ടും കടലയും ഉണ്ട് ആ ഓക്കെ ആ ഉണ്ടാകും ആ ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട് ഹൈജീൻ ആണ് നല്ല വൃത്തിയുള്ള സ്ഥലം ആണ് കുട്ടികൾ ഉണ്ടെങ്കിലും പ്രശ്നം ഒന്നുമില്ല നല്ല സ്ഥലസൗകര്യം ഒക്കെ ഉള്ള സ്ഥലം വണ്ടി ആണെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ആണ് ആ ഞങ്ങളുടെ വീട് ചേർന്ന് തന്നെയാണ് കടയുടെ പുറകിലാണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി ഇവിടെ തന്നെ ഇണ്ടാക്കിണെയാണ് ഏയ് ഏയ് ഇല്ല ഇല്ല ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ല ചൂടൻ സാധനം ആണ് വന്നോളൂ അതിലൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട ധൈര്യമായിട്ട് വന്നോളൂ ഇല്ല കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇത് വരെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലെയിൻറ്സും ഇതുവരെ വന്നിട്ടും ഇല്ല നിങ്ങൾ വന്നോളൂ ഉം ഓക്കെ ആ ശരി ഓക്കെ ശരി